ഹലോ കുട്ടനാടൻ പാലസ് അല്ലേ എൻ്റെ മോൻ്റെ ജന്മദിനമാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് എനിക്കൊര് അൻപത് പേരുടെ ഭക്ഷണം ആവിശ്യമുണ്ട് എനിക്കത് അതിനകത്ത് എനിക്ക് മന്തി വേണം പിന്നെ ചിക്കൻ ബിരിയാണിയും വേണം പിന്നെ ഇപ്പോൾ പാലപ്പവും താറാവും വേണം അപ്പോൾ ഇത്രയും സാധനങ്ങള് ഞാൻ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളെത്ര സമയം എത്ര മണിക്കിവിടെ കൊണ്ടെത്തിക്കും എനിക്കൊരു പതിനൊന്നരയോട് കൂടിയാണ് എനിക്ക് കിട്ടണ്ടത് നിങ്ങളത്ര മണിയാകുമ്പോൾ എനിക്കത് കൊണ്ടുത്തരാൻ സാധിക്കും പിന്നെ അതിൻ്റെ എമൗണ്ട് നിങ്ങളെത്രയാന്ന് വെച്ചാൽ അതു പറയുക അപ്പോൾ എനിക്ക് അത് പന്ത്രണ്ട് മണി സമയത്ത് അതിന് പന്ത്രണ്ടിനോ പതിനൊന്നരയ്ക്കോ കൊണ്ട് തന്നെങ്കിൽ മാത്രമേ എനിക്കത് സെർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം നല്ല രുചികരമായിരിക്കണം നന്നായിട്ട് പാചകം ചെയ്ത് എനിക്കത് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നു നിങ്ങള് തരണം അപ്പോൾ കുട്ടനാടൻ പാലസ് കരുവാറ്റയിലേക്കാണ് ഞാനിപ്പം ഓർഡർ പറയുന്നത് അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള ക്രമീകരണങ്ങള് നടത്തണം നല്ല ഭക്ഷണമായിരിക്കണം അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ ജന്മദിനമാണ് മറക്കരുത് നിങ്ങളാസമയത്ത് തന്നെ എനിക്ക് സാധനം കൊണ്ടുത്തരാൻ ശ്രദ്ധിക്കണേ അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ അതുപോലെ തന്നെ ഒരു ബെർത്ത്ഡേ കേക്ക് കൂടെ എനിക്ക് നിങ്ങള് കൊണ്ടുവന്നത് തരണം അതുകൂടെ ഞാൻ ക്രമീകരിക്കയാണ് അപ്പം അതുകൂടെ നിങ്ങളെനിക്ക് കൊണ്ടുവന്ന് തന്ന് തരണം കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ വരണം നിങ്ങള് വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം നമുക്ക് ഈ ഇറക്കണ്ടതാണ് അപ്പോൾ അതിനുള്ള സജീകരണങ്ങളും കൂടെ എനിക്കിവിടെ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കാരണം നല്ല ഭക്ഷണമായിരിക്കണം എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ തന്നെ എനിക്കതിന് ഭക്ഷണം കൊടുക്കാനും നല്ല രീതിയിൽ ആസ്വദിച്ച് അവരെല്ലാവരും നല്ല ഭക്ഷണമാണെന്നും പറയുവാനുമായിട്ട് സാധിക്കണം എന്നാലേ നിങ്ങൾക്ക് വീണ്ടും ഓർഡർ കിട്ടുകയുള്ളൂ കേട്ടോ